ആ ശ്യാമേ എനിക്ക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാനാ ആയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകള് വേണമായിരുന്ന് അത് ഡിജി ലോക്കറില്നിന്ന് എടുക്കണം എന്തുകൊണ്ടെന്നുവച്ചാല് ഞാന് സ്ഥലത്തില്ല ഞാന് വീട്ടില് ഇല്ല അപ്പോള് ഡിജി ലോക്കറില്നിന്ന് എടുക്കണമായിരുന്നു അത് ഇപ്പോള് എങ്ങനെ എടുക്കുമെന്ന് ഒന്ന് എങ്ങനെ എടുക്കുമെന്നെനിക്കറിയില്ല ഇവിടെയാണെങ്കില് ഇവിടെ ഇപ്പോള് എന്താണ് കമ്പ്യൂട്ടറും നേരെ വർക്ക് ആവുന്നില്ല കറണ്ട് ഇല്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കുന്നു ഒരു മൊബൈൽ ആപ്പിലൂടെ എന്തോ എടുക്കാന് പറ്റൂലെ പ്ലേസ്റ്റോറില് അങ്ങനെ എന്തോ ആ ആപ്പ് ഡൗൺലോഡെയ്തിട്ട് അതുവഴി നമുക്ക് ചെയ്യാന് പറ്റൂലെ ഈ സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്ക് ദൂരസിന്ന് എടുക്കാ പറ്റൂല്ല ഇവിടുന്നൊരു പത്ത് തൊണ്ണൂറ്റെട്ട് കിലോ മീറ്ററ് വീട്ടിലോട്ടുണ്ട് അപ്പോള് എനിക്ക് എന്തായാലും ഇവിടെനിന്ന് തന്നെ ഇത് അപ്ലോഡീയ്യണം അപ്പോള് പറ്റുമെങ്കില് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഇതിൻ്റെ ഇത് കിട്ടുമെങ്കില് കൊള്ളായിരുന്നു അപ്പോഴത് എങ്ങനെ എടുക്കാന് പറ്റും ഡിജി ലോക്കറീന്നെടുക്കാലേ ഡിജി ലോക്കറിൽ എങ്ങനെയാണ് കയറുന്നേ അതിലെന്തോ മൊബൈൽ നമ്പരൊക്കെ കൊടുക്കണോ അതിപ്പോള് എനിക്കാണെങ്കില് പിന്നൊരു കാര്യമുണ്ട് എനിക്ക് ഈ മാസം തന്നെ കൊടുക്കണം ഈ മാസം ഒരു ഇരുപത്തിയഞ്ചാം തിയ്യതിക്കുള്ളില്ത്തന്നെ കൊടുക്കണം അതാണ് പ്രശ്നം ഇന്നിപ്പോള് ഇരുപതായല്ലോ അപ്പോഴേ ഇതിനുള്ളില് കൊടുക്കുകയും വേണം അപ്പോള് ഇപ്പോള് എങ്ങനെ എന്ത് ചെയ്യണമെന്നാണ് ഡിജി ലോക്കര് പ്ലേ സ്റ്റോറീന്ന് ഡൗൺലോഡെയ്യണം അല്ലെ ഓ ഓ അപ്പോള് അതില്നിന്ന് ഡൗൺലോഡെയ്തിട്ട് അതില് മൊബൈൽ നമ്പര് പിന്നെ ആധാര് പിന്നെ ഒ ടി പി ഒക്കെ കൊടുക്കണം അല്ലേ പാസ്സ്വേർഡൊക്കെ ക്രിയേറ്റെയ്യണം അല്ലേ ആ ആ ആ ആ ഓ അങ്ങനെ ചെയ്യാം ഓ അത് ഞാൻ ചെയ്യാം ചെയ്യാം അപ്പോള് ഞാന് എന്തായാലും എന്തായാലും ഞാന് പ്ലേ സ്റ്റോറിന്ന് ഇതെന്തായാലും ഡൗൺലോഡെയ്യാ എന്തായാലും എനിക്ക് ഈ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും സബ്മിറ്റീതേ പറ്റു അതുടനെ തന്നെ ചെയ്യണം അപ്പോള് അതില് കയറിയിട്ട് മൊബൈൽ നമ്പര് പിന്നേ ഒ ടി പി വരും അപ്പോള് അത് അടിച്ചു കൊടുത്തിട്ട് അതില് നമ്മുടെ ഡീറ്റെയിൽസ് വരും അല്ലേ ആധാർ നമ്പറും കൊടുക്കണ്ടേ ആധാർ നമ്പര് ഓ ആധാര് നമ്പറൂടെ കൊടുത്ത് അത് എടുക്കണം അല്ലേ ആ ആ അത് എടുത്തിട്ട് എന്തായാലും ഞാന് അപ്പോള് അതീന്ന് ഡൗൺലോഡെയ്തിട്ട് ഞാന് എന്തായാലും ഇത് അയക്കാം സ്കോളർഷിപ്പിനെ സ്കോളർഷിപ്പിനുള്ളത് എന്തായാലും അപ്ലിക്കേഷൻ കൊടുക്കണുണ്ട് അപ്പോള് സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ കൊടുക്കണകൊണ്ട് ഈ ഡോക്യൂമെൻസ്സെന്തായാലും അത്യാവശ്യമാണ് അപ്പോള് എന്തായാലും അത് ഞാന് എന്തായാലും എൻ്ററീ ഡിജി ലോക്കറ് ഡൗൺലോഡേയ്ത് എല്ലാം ശരിയാക്കി റെഡിയാക്കാം ഓക്കെ താങ്ക് യു